താങ്കളുടെ സ്ഥലം ഒരു രണ്ട് കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ ഇപ്പം എത്തുന്നതാണ് താങ്കളെന്താണ് ചെയ്യുന്നത് ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ എന്ത് വ്യവസായമാണ് വിളക്കുതിരിയോ ഇതിലൂടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നുണ്ടോ ഈ വിളക്കുതിരി വ്യവസായത്തിലൂടെ ആ ശരി എനിക്കും ഒരു വ്യവസായം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള പണം എൻ്റെ കയ്യിലില്ല അപ്പോൾ ഈ വായ്പയ്ക്ക് എന്തെങ്കിലും വസ്തു അവിടെ വയ്ക്കേണ്ടി വരില്ലെ ആഹാ എൻ്റെ വ്യവസായം എന്ന് വച്ചാൽ ഒരു ചായപ്പൊടിയുടെ വ്യവസായം നടത്താനാണ് എനിക്കാഗ്രഹം ഇതിലേ ലാഭ നഷ്ടം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ അറിയുമോ ഓ അങ്ങനെ അപ്പോൾ ചായപ്പൊടിയുടെ ഗുണമേന്മ കൂടുകയാണെങ്കിൽ ബിസിനസ്സ് സക്സസ്ഫുള്ളാകുമായിരിക്കും അല്ലെ അല്ല എനിക്ക് പഷേ വ്യവസായം തുടങ്ങുന്നതിന് മുമ്പ് ഇത് വിപണിയിലേക്കിറക്കാനൊരു മാർഗ്ഗം അതായിരുന്നു എനിക്ക് ഒരു ഇത് ഓ വളരെ നന്ദി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വ്യവസായം തുടങ്ങിയാൽ താങ്കളെ ബന്ധപ്പെടാം ഓക്കെ താങ്കളുടെ സ്ഥലം ഇതാ ഇവിടെയാണ് താങ്കൾക്ക് ഇവിടെ ഇറങ്ങാം